ഞങ്ങളുടെ സമൂഹത്തിൽ നൃത്തം ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ദിവസങ്ങൾ അല്ലേൽ ഉത്സവങ്ങൾ പരിപാടികൾ ഉണ്ടാകാറുണ്ട് ഉണ്ട് അതായത് ഉത്സവകാലങ്ങൾ അതായത് നവരാത്രി സമയങ്ങളിൽ ആയിക്കോട്ടെ അവിടെ ആ സമയങ്ങളിലാണ് കൂടുതലും പ്രാധാന്യം നൽകാറുള്ളത് പിന്നെ വേലകൾ പൂരങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ അമ്പല കമ്മിറ്റികൾ ഒക്കെ രൂപീകരിച്ച് പരിപാടികൾ ഞങ്ങൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ നിർത്തമഭ്യസിക്കുന്നവർക്ക് ഞങ്ങൾക്ക് വേദി വേദികൾ ഒരുക്കി തരാറുണ്ട് പിന്നെ നമ്മളുടെ നാട്ടിൽ തന്നെ ഒരു മാതൃസംഗമം എന്ന് പറയുന്ന ഒരു അമ്മമാരുടെ അതായത് മുപ്പത് നാപ്പത് വയസ്സ് മേൽ പ്രായമുള്ള അമ്മമാര് അമ്മമാരുകൾ പങ്ക് കൊണ്ട് തിരുവാതിര കളി അംഗം തന്നെ ഞങ്ങളുടെ നാട്ടിലുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത് തന്നെ വീട്ടിൻ്റെ അല്ലെങ്കിൽ ഗ്രാമീണ പരിസരത്ത് തന്നെ ഒരു നൃത്തകലാ ക്ഷേത്രം രണ്ട് നൃത്തകലാ ക്ഷേത്രങ്ങൾ ഉണ്ട് അതില് ഒരുപാട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പഠിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോളും അത് നില നല്ല രീതിക്ക് നിലനിന്ന് നിലനിന്ന് കൊണ്ട് പോകുന്നുണ്ട് പരിപാടികൾ ഉത്സവങ്ങൾക്കാണ് കൂടുതലും പരിപാടികൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ച് പ്രകടനം കാഴ്ച വെക്കാറുള്ളത്